കുട്ടിക്കാലത്താണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാലത്താണെങ്കിലും ഒരുപാട് രാജാക്കൻമാരുടെ കഥകളും അവരുടെ റിയൽ സ്റ്റോറികളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് രാജാക്കന്മാരെക്കുറിച്ച് പണ്ടുകാലത്തിവിടെ നടന്ന യുദ്ധങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇതു വച്ച് നോക്കുമ്പോൾ നമ്മുടെ അടുത്തുതന്നെ ഒരു പഴശ്ശിരാജാവിൻ്റെ ഒരു കുടീരം ഉണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്നോർക്കുക പഴശ്ശിരാജയെക്കുറിച്ചാണ് പഴശ്ശി രാജാവിനെ രാജാവിനെക്കുറിച്ചാണ് അപ്പം അവരുടെ യുദ്ധങ്ങളും അതുപോലെത്തന്നെ അദ്ദേഹത്തെ ഇവിടെ നമ്മുടെ നാട്ടിലാണ് ഇവിടെയാണ് കൊണ്ടുപോയി അടക്കി ഇങ്ങനെ കുടിയിരുത്തിയിരിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അതുപോലെതന്നെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരുപാട് പഴയ കാലഘട്ടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പുരാതനമായ പിന്നെ ചിത്രങ്ങളും